ഞാൻ എൽ കെ ജി മുതൽ ഇപ്പോൾ ഇതാ ഇതുവരെ ഞാൻ ഇപ്പോൾ കോളേജിലാണ് പഠിക്കണെ കോളേജിൽ വരെ ഞാൻ എല്ലാ പരിപാടിക്കും ഡാൻസിനെല്ലാം പങ്കെടുക്കാറുണ്ട് അതായത് എനിക്കെ ഞാൻ പറയണത് എൽ കെ ജി മുതൽ അതേ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടു ഞാൻ ഒരു നാലു വർഷം ഞാൻ ഡാൻസ് പഠിച്ചിട്ട് നിർത്തിയതായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് ക്ലാസിക്കൽ ഡാൻസ് അല്ല പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒന്നും കൂടി എന്താ പറയുക എന്താണെന്നുവെച്ചാൽ ഇപ്പം അറിയാമല്ലോ വെസ്റ്റർൻ സ്റ്റൈൽ ഡാൻസുകളാണ് ഞാനിപ്പോൾ കൂടുതൽ കളിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഡാൻസിനൊക്കെ ഞാൻ കോളേജിൽ നിന്നാണെങ്കിലുമതെ എല്ലാറ്റിനും ഞാ പങ്കെടുക്കാറുണ്ടെനു അതായത് എനിക്ക് ഞാൻ ഡാൻസിന് പങ്കെടുക്കുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഒരു എന്താ പറയുക മറ്റേത് ഇപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ ക്ലാസിലിരുന്നിട്ട് പഠിച്ച് ആകെ എന്തോപോലെയ്യ് തലയെല്ലാം എന്താ തലവേദന എടുത്തിട്ട് ഉറക്കം വരും ക്ഷീണമാകും അങ്ങനെ അങ്ങനെ ഉള്ള ഒരു ചടങ്ങിൽ നിന്നു തന്നെ എപ്പോഴും ഇങ്ങനെയുള്ളൊരു സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്നെ സഹായിക്കുന്ന ഒരാളാണ് ഡാൻസ് എന്നു പറയണത് ഞാനിപ്പം ഇപ്പോൾ കോളേജിലെല്ലാം ഞാനിങ്ങനെ കോളജിലത്തെ പരിപാടിക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കും പിന്നെ അതുപോലെതന്നെ ഏഴാം ക്ലാസിൽ നിന്ന് ആണെങ്കിലും അഞ്ചാം ക്ലാസിൽ നിന്ന് ആണെങ്കിലും എൽ കെ ജിയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആനുവൽ ഡേയ്ക്കും അല്ലെങ്കിൽ ജില്ല തലങ്ങളിലും സ്റ്റേറ്റിന്നും ഡിസ്ട്രിക്ടിൽ നിന്നും അങ്ങനെ എല്ലാ പരിപാടിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെതന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻസിലെന്നെ ഇപ്പോൾ എക്സാംസിന്റെ ടൈമിലിപ്പോൾ എനിക്കെന്താണെന്നു വെച്ചാൽ എനിക്ക് ഡാൻസിങ് ഭയങ്കരിഷ്ടാ അതിനെനിക്ക് എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വേറെ കാണികൾ വേണോ അങ്ങനെയുള്ള അങ്ങനെ ഒരു നിർബന്ധവും എനിക്കില്ല ഞാൻ ഡാൻസ് എൻ്റെ സ്കില്ലായിട്ടുള്ള ഡാൻസ് ഞാൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്നുവെച്ചാൽ എൻറെ പ്രശ്നങ്ങൾ അതായത് എന്റെ എന്താ പറയുക സ്ട്രെസ് എല്ലാം എക്സാമിനെ പറ്റി ആലോചിച്ചിട്ടുള്ള സ്ട്രെസ് അങ്ങനെ എന്തെങ്കിലും സങ്കടം വരിക എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോളൊക്കെ ഞാനാ സങ്കടങ്ങളും എന്തൊക്കെയാണോ എന്റെ തലക്ക് ഭാരമായിട്ട് തോന്നിയത് അതൊക്കെ ഞാൻ ഒന്ന് ഇറക്കി വെക്കുന്നത് ഒന്ന് ഡാൻസ് കളിച്ചു വിയർക്കുമ്പോളാണ് അങ്ങനെയാ കുഴക്കത്തിലുടെയാണ് ഞാനെന്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കുന്നത് സോ എനിക്ക് ഡാൻസിന് ഞാൻ ഇപ്പോഴും ഞാനിപ്പോൾ സെമ്മെക്സാമിന്റെ ടൈമിലാണെങ്കിലും അതേ സ്റ്റഡി ലീവിന്റെ ടൈമിൽ ഏതു സമയവും പഠിച്ചിരിക്കുമ്പോൾ പക്ഷേ ഞാനൊരു പത്തു മിനിറ്റ് എങ്കിലും ഞാൻ ഒരുദിവസം ഒരു പത്തു മിനിറ്റ് അല്ല ഒരുദിവസം ഞാനൊരു അരമണിക്കൂർ എങ്കിലും ഞാൻ ഡാൻസ് കളിക്കും അങ്ങനെ ഞാനെന്റെ സ്ട്രെസ് എല്ലാം മെയിന്റെയിൻ ചെയ്യ്ത് അതായത് സ്ട്രെസ് എല്ലാം കുറച്ച് കുറച്ച് വരുന്നത്